ആ രവി നമുക്ക് നാളെ റെയിൽവേ സ്റ്റേഷനിലേക്കൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം അയാള് നാളെ എപ്പം എത്രമണിക്ക് വരുവോന്നൊക്കെ ഒന്നന്വേഷിച്ചിട്ട് അയാളെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര തിരക്കുള്ള ഒരു വ്യക്തിയാണ് അപ്പം അയാള് സമയത്തിനൊക്കെ ഭയങ്കരമായിട്ട് വില കൊടുക്കുന്നൊരു ഒരു ആളായതുകൊണ്ട് നമുക്ക് അയാളെ എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കുവാണെങ്കിൽ സമയത്തിന് എത്തിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെയും കൂടുതലും ആ പുള്ളി നമ്മുടെ ക്യാബൊക്കെ ബുക്ക് ചെയ്യും കൂടുതലും ബുക്ക് ചെയ്യും അതൊക്കെ നമുക്ക് നല്ലൊരു നല്ലൊരു ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും പുള്ളിക്ക് ഒത്തിരി പിടിപാടൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ അവരുടേതായ അവരിങ്ങനെ പറയുമ്പത്തേക്ക് നമ്മള് കൃത്യ സമയത്ത് എത്തിക്കുമ്പത്തേനും അയാള് ഇത് പലരോടും പറയുമ്പോൾ നമുക്കൊത്തിരി കി ഇത് ട്രാവലിങ്ങിനു കിട്ടും അപ്പോൾ അതിന് വേണ്ടി നീ കൃത്യസമയത്ത് എത്തിക്കണേ